അ ഓക്കെ ഓക്കെ സാറേ എങ്ങനെ സെവൻ സീറ്റർ ആണോ ആ ഓക്കെ നമ്മൾ ഇപ്പോൾ സുസുക്കിൻ്റെ നമുക്ക് ഇപ്പോൾ വരുന്നത് എർട്ടിഗ പിന്നെ എർട്ടിഗ അതാണ് ഇപ്പോൾ സെവൻ സീറ്ററിൽ വരുന്നത്

ഇല്ല സാർ നമ്മൾ പുതിയ എഡിഷനിൽ എല്ലാം അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇപ്പോൾ യാത്ര സുഖം അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണെന്ന് സാർ യാത്രയ്ക്കൊക്കെ ബെറ്റർ ആണ് ഇപ്പോൾ കുറേ വണ്ടി സെയിൽ ആകുന്നുണ്ട് ആ സാ നമുക്ക് ഇപ്പോൾ അതിന്റെ ബേസ് മോഡൽ വരുന്നത് പതിനാറ് ലക്ഷത്തിൻ്റെ അടുത്ത് വരും മ് സാറേ നമ്മളിപ്പം ഓണം ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നയന്റി പെർസന്റേജ് വരെ ലോൺ കിട്ടും നമുക്ക് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫസ്റ്റ് തരുവാണെങ്കിൽ ബാക്കി ഫുൾ ലോൺ ചെയ്ത് തരാം ഈ ഡോക്യുമെന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക നിങ്ങളുടെ എന്തെങ്കിലും പ്രൂഫും കാര്യങ്ങളും ചെക്ക് ലീഫ് കൊണ്ടുവന്നാൽ മതി ആ സാറേ എന്നത്തേക്ക് എത്താൻ പിന്നെ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുവോ എപ്പോഴത്തേക്കാണ് എത്തുക എന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുവോ നാളെത്തേക്കാണോ വണ്ടി നമുക് ഇപ്പോൾ എന്താണ് പറയുക ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു വൺ ടു വീക്ക് അതിനുള്ളിൽ കിട്ടും മ് ഇപ്പോൾ വരുമ്പോൾ ടെമ്പററി ആയിട്ടായിരിക്കും വരിക രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് തരത്തില്ല ഫാൻസി നമ്പർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യണം ആ മ് ആ ഡെലിവെർ ചെയ്ത് തരും ആ പിന്നെ നമ്പർ ആർ ടി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ ഈ ഷോറൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി നമ്മൾ ചെയ്ത് തരാം

കളർ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ബേസ് മോഡലിന് നമുക്ക് ഇപ്പോൾ വരുന്നത് വൈറ്റ് മറ്റേ ഡാർക്ക് ബ്ലൂ സിൽവർ ആ കളർ ഒക്കെയാണ് കൂടുതൽ വരുന്നത് ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ സാർ നാളെ വന്നോളൂ മ്